ഹലോ പോലീസ് സ്റ്റേഷന് അല്ലെ അത് ഓക്കെ ഞാൻ മഹാദേവാണ് ഞാനിവിടെ കുട്ടിക്കാനത്താണ് താമസിക്കുന്നത് അപ്പോള് ഓക്കെ ഞാനപ്പോള് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോള് അടുത്ത ദിവസം ഇവിടെ ദില്ലി വരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്റെ ഫാമിലിയുമായിട്ട് അപ്പം ആ ഞാനിപ്പം വർക്ക് ചെയ്യുകയാണ് ഞാനൊരു ഗവൺമെൻ്റ് എംപ്ലോയിയാണ് അപ്പോള് ആ അപ്പം ഞാനിങ്ങനെ വർക്ക് ചെയ്യുകയാണ് ഞാന് ഒരു ചുമ്മാ ടൂറായിട്ട് ദില്ലി വരെ ഒന്ന് കറങ്ങാൻ പോവുകയാണപ്പോള് ഞാന് ഈ ഇരുപതാം തീയതിയാണ് പോകാനിങ്ങനെ ആലോചിക്കുന്നത് ഇരുപതാം തീയതി തന്നെ പോകും അപ്പോള് അന്നാണ് ടിക്കറ്റൊക്കെ ബുക്കായിരിക്കുന്നത് അപ്പോള് ആ എനിക്ക് ഞാനിപ്പോള് ഇവിടെ അടുത്തയിടെ കുറച്ച് മോഷണങ്ങളൊക്കെ നടന്നല്ലോ

എന്റെ കുട്ടിക്കാനം കുട്ടിക്കാനം ടൗണിൻ്റെ അടുത്തുതന്നെ ഓ അപ്പം അതെ ഞാന് ആ അതെ അപ്പോള് ഇങ്ങനെ ഉള്ളതുകൊണ്ടപ്പോള് ഒരു പേടിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഞാന് വിളിച്ചതാണ് അപ്പം നിങ്ങള് എപ്പോഴും പോയി അന്വേഷിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെയുണ്ടെന്ന് കേട്ടായിരുന്നു

ആ അത് ആ അതുമതി അതുമതി അപ്പോള് ഞാനിങ്ങനെ മതി മതി മതി ഓ ഓക്കേയെങ്കില് ഓ ആ ആ അതുമതി മതി

അത് ആ കുഴപ്പമില്ല ആ അപ്പം ഞാനങ്ങോട്ട് വന്നാല് മതിയോ ഞാന് സ്റ്റേഷനിലേക്ക് വന്നാല് മതിയോ ആ അല്ല അത് നിങ്ങള് പറഞ്ഞാല് മതി ആ സമയത്ത് ഞാന് എത്തിക്കോളാം കുഴപ്പമില്ല ആ വന്നേക്കാം ആ കുഴപ്പമില്ല ആ എന്തായിരുന്നു ഇല്ല ഞാന് അറിഞ്ഞില്ല എവിടെ ഓ എവിടെ കുട്ടിക്കാനത്തോ ഓ ഹോ ഹോ ഓ ഓ ഹോ ഹോ ഓ ഓ ഓ ഓക്കെ ഓക്കെ കുഴപ്പമില്ല നിങ്ങള് പറഞ്ഞാല് മതി നിങ്ങള് പറഞ്ഞാല് മതി ഞാൻ ഓക്കെ ഓക്കെ ഞാന് വിളിച്ചിട്ട് എത്തിയേക്കാം ആ എന്തൊക്കെ ഡീറ്റെയ്ൽസ് വേണം

ആണ് ആ ആ ആ റേഷൻ കാഡ് കൊണ്ടുവരാം ഓ ഓ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ടിക്കറ്റ് ടിക്കറ്റ്സൊക്കെ വേണ്ടേ ടിക്കറ്റ് ഡീറ്റെയ്ൽസൊക്കെ വേണ്ടേ ടിക്കറ്റിൻ്റെ പോകുന്നതിന്റെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അത് ഞാനിങ്ങനെ പേരൻസുമൊക്കെയായിട്ട് പോകുന്നതാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ചെയ്തേക്കാം ഓക്കെ ഓക്കെ ചെയ്തേക്കാം ചെയ്തേക്കാം ആ അപ്പം ആ പിന്നെ വീട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊന്നും വേണ്ടല്ലോ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ